ആം നമ്മൾ കോഴിക്കോട് നിന്നാണ് വരുന്നതേ അപ്പം നമുക്ക് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നമ്മളിവടെ കറങ്ങാൻ പറ്റിയായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ നല്ല ചായയൊക്കെ കിട്ടി ഇപ്പം നല്ല തണുപ്പും ഒക്കെ മാറി നല്ലൊരു ഇതാണെ നമുക്ക് ഇച്ചിരി ചായപ്പൊടിയൊക്കെ നാട്ടിലേക്ക് കൊണ്ട് പോകാനായിരുന്നേ ആ ബൾക്ക് ആ ബൾക്ക് ആയിട്ട് വേണം കാരണം വീട്ടിലും ഇവിടുത്തെ കുറച്ച് പോകുമ്പേ ഫ്രണ്ട്സിനൊക്കെ അവിടെ കൊടുക്കാനായിട്ടൊക്കെയാണെ ആ അതെ അതെ അതെ അപ്പം ഞാനിപ്പം ഇവിടെയൊരു കുറച്ച് ദിവസം ആയിട്ടുണ്ട് നമ്മൾ ഇവിടയെ നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ നല്ല റ്റേസ്റ്റൊക്കെയുണ്ട് ആ അപ്പം ഇവിടെ നല്ല തേയില നല്ല തേയിലപ്പൊടി ഏതാ നമുക്കിവിടെ കിട്ടുന്നെ

ആ ഹാ ഹാ ഹാ ഓക്കെ ഓക്കെ നമുക്കവിടുത്തെ ഫാക്ടറിയൊക്കെയൊന്ന് കാണാൻ പറ്റുവോ ആണല്ലേ ആ ഓക്കെ ഓക്കെ ആ നമുക്കവിടെ ചെറിയൊരു ഷോപ്പൊക്കെയുണ്ട് അപ്പം ഷോപ്പിൽ നമുക്ക് സെയില് നടത്താനൊക്കെയായിട്ടാണെ

ആ ഓക്കെ ഓക്കെ ഓക്കേ ഇപ്പം നമ്മൾ ഫസ്റ്റൈമിൽ അവിടെ വന്നെയാ അന്നേരം നമുക്ക് കിട്ടിയത് അന്നേരമാണേ ആ ആ ആണല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പം ആ ഞാനിപ്പോൾ മൂന്നാറുണ്ട്

ആ ഓക്കെ അങ്ങനെ നാളെ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഞാൻ വരാം നാളെ ആ ആ ഓക്കെ ഓക്കെ